മൃഗങ്ങളിൽ എനിക്കേറ്റവും ഇഷ്ടമുള്ളത് വളർത്തു പട്ടി കാരണം നമ്മള് വീട്ടില് വളർത്തുന്ന പട്ടികള് നമ്മള് എന്താന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിൽ കൊണ്ടുവന്ന് അതിനെ ഓമനിച്ചു പാലുകൊടുത്ത് വളർത്തി അതിനെ അതിനെ മടിയിലൊക്കെ വച്ചിരുത്തി അതിനെ നമ്മള് എന്താ കുട്ടീനെ പോലെ ലാളിച്ച് അതിന് നമ്മള് ഒരു കുഞ്ഞിനാളില് കൊണ്ടുവരാണെങ്കില് എന്തെന്നുപറയുക കണ്ണൊന്നു തുറന്നിട്ടുണ്ടാവുള്ളൂ കാരണം കണ്ണ് തുറന്നൊരു പട്ടിക്ക് അത്രയും നമ്മള് എന്താ പറയുക ഒരു കുട്ടി ജനിച്ചു വീഴുന്നതു പോലെയാണ് പട്ടിക്കുഞ്ഞ് കാരണം കുഞ്ഞ് ജനിച്ചുവീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറന്ന് ഒന്നു നോക്കും പട്ടിയും ജനിച്ചു കഴിഞ്ഞാൽ കണ്ണ് ഏഴു ദിവസമോ എത്രയോ ദിവസം അടച്ചിരിക്കും അതൊന്നു വലുതായി കഴിഞ്ഞാൽ പാല് നമുക്ക് കുപ്പിപാല് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കണം പട്ടിയിൽ നിന്നിങ്ങോട്ടു നമ്മള് മാറ്റിയിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോവുക അങ്ങനെ കുട്ടീനെ കൊണ്ടുപോയി വീട്ടിൽനിന്നു നമ്മള് വളർത്തി വല്ലുതാക്കുമ്പത്തേക്കും ഈ പട്ടിക്ക് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മള് പോകുന്നിടത്തും നമ്മള് കിടക്കുന്നിടത്തും നമ്മള് ഇരിക്കുന്നടുത്തും എവിടെ നിർത്തിയാലും അത് ഓടി മടിയിൽ കയറി ഇരിക്കുകയാണ് ചെയ്യുക പട്ടി എന്ന് പറഞ്ഞെങ്കില് ഏറ്റവും നല്ല മൃഗമാണ് കാരണം പട്ടിക്ക് ബുദ്ധി കൂടുതലാണ് പട്ടി എവിടെ നമ്മള് പോകുന്നോ നമ്മുടെ കൂടെ വരും അവിടുന്ന് വീട്ടിലേക്കു തിരിച്ചുവരും നമ്മളിനി എവിടെങ്കിലും പോയിക്കഴിഞ്ഞ് ഇതിനെ കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മള മണം പിടിച്ച് അത് പുറകില് വരും അല്ലെങ്കിൽ നമ്മളെവിടെങ്കിലും പോയി പോയിട്ട് ഇതിനെ കാണാണ്ട് ഒളിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നോക്കി നിൽക്കും ഇനീപ്പം കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ടാലും നമ്മളെ ഓടി വന്ന് ചുറ്റോളും ചുറ്റും നമ്മുടെ മടിയിൽ കയറി ഇരിക്കും നല്ലൊരു മൃഗമാണ് പട്ടി പട്ടീനെ കുറിച്ച് വേറൊരു വശം പറയുകയാണെങ്കിൽ പട്ടീൻ്റെ രോമം പട്ടീൻ്റെ രോമം നമ്മുക്കെല്ലാവർക്കും അസുഖങ്ങള് വരുത്തും കാരണം പട്ടീന്നു പറഞ്ഞെങ്കില് എന്താ പറയുക പട്ടിക്ക് ഭയങ്കര രോമമുള്ള പട്ടികളുണ്ട് രോമം കുറഞ്ഞ പട്ടികളുണ്ട് പല സൈസ് പട്ടികളുണ്ട് അതുകൊണ്ട് പട്ടീൻ്റെ രോമം എല്ലാവർക്കും പിന്നെ പിടിക്കുകയില്ല കാരണം പട്ടിക്ക് പല അസുഖങ്ങളും എപ്പഴാ പെട്ടന്ന് പശു പട്ടിക്ക് അസുഖങ്ങള് വരും അത് മനുഷ്യനിലേക്കും പകരും അതുകൊണ്ടു പട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കില് പട്ടീനെ എനിക്ക് രോമത്തിൻ്റെ കാര്യത്തിലെനിക്കു അലർജിയൊക്കെ വരുന്നകൊണ്ട് പട്ടീനെ എനിക്ക് ഇഷ്ടമല്ല